വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹിക നില എന്നിവയുടെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പോലെ തന്നെ ആയിരിക്കും വേറെ ഒരാളും പഠിച്ചത് പക്ഷേ ആണുങ്ങൾ ആണെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ സാലറി കൊടുക്കും ഇപ്പോൾ പെണ്ണുങ്ങൾക്കിപ്പോൾ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരമാണ് ആണുങ്ങൾക്ക് അതേ ജോലി ചെയ്യുന്ന ആണുങ്ങൾക്ക് ചിലപ്പോൾ പതിനഞ്ചായിരം രൂപയായിരിക്കും അതൊക്കെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ലിംഗ സമത്വ ലിംഗ വിവേചനമാണ് പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ അത് കുറേ മാറി ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെന്നോക്കെ പറഞ്ഞാൽ പതിനെട്ട് വയസ് വരെ പഠിച്ചാൽ മതി പിന്നെ കെട്ടിച്ച് വിടാം ആ ഒരു മൈൻഡിൽ ഇപ്പോൾ എല്ലാവരും ഉള്ളത് ഇപ്പോൾ അതും കുറേയൊക്കെ മാറിയിട്ടുണ്ട് പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ അതായത് വീട്ടിലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത പറ്റാതിരിക്കുന്ന അതായത് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ടാവും കാരണം കാഷിൻ്റെ പ്രശ്നം വരുമ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും പിന്നേന്നു പറഞ്ഞാൽ സ്ത്രീ കുറ്റകൃത്യ കേസുകൾ അതായതിപ്പോൾ പീഡനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇള്ളോണ്ട് തന്നെ ഇപ്പോൾ ആൾക്കരോക്കെ അങ്ങനെ കുട്ടികളെ ദൂരെയൊന്നും പഠിക്കാൻ വിടാത്തൊരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്